ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ സ്ത്രീകൾ സുഗന്ധവ്യജ്ഞനം പ്രത്യേകിച്ച് മുളക്പൊടി ചുവന്ന മുളക് പൊടിക്കാനായിട്ട് ഒരിക്കലും ഒത്തുകൂടാറില്ല അവരവർ അവരവരുടെ വീടുകളിൽ പൊടിച്ചെടുക്കാറാണ് പതിവ് അല്ലായെങ്കിൽ ഇപ്പോൾ അത് പൊടിക്കുന്ന മില്ലണ്ട് അതുവല്ലായെങ്കിൽ ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് ചുവന്ന മുളക് പൊടി കടയിൽ പായ്ക്കെ ചെയ്ത് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അതു കാരണം ആരും തന്നെ അത് പൊടിക്കാൻ വേണ്ടീട്ടൊത്തുക്കൂടുന്ന പരിപാടി ഇന്നത്തെ കാലത്ത് ഇല്ല